ഇപ്പം കല കരകൗശല ഉപഭോഗത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കലാന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നാടകം പിന്നെ മോണോ ആക്ട് അങ്ങനത്തെ പലതരം കലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരോരുത്തരും വ്യത്യസ്ത പരമായിട്ടുള്ള കലകൾ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം റെ റീഡിങ്ങുളള ഒരു കലയാണ് പിന്നെ പെയിൻ്റിങ്ങ് ആ ഡ്രോയിങ്ങ് ഇതൊക്കെ ഒരു കലകളാണ് അപ്പം അതൊക്കെ മെയിനായിട്ട് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ നല്ല രീതിയിലെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കരകൗശല വസ്തുക്കൾന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം കോവിഡ് കാലത്തൊക്കെ നല്ലരീതിയിലുള്ള ആർട്ട് ആൻഡ് വർക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് നല്ല രീതിയിലൊക്കെ എത്തുക ആണെങ്കിൽ നമുക്കിപ്പം ഒരു കരകൗശല വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല തരം സബ്സീഡികൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക ആണെങ്കിൽ ഈ ഇപ്പം എന്തപറയാ ഇപ്പം ഉണ്ടാക്കുന്ന ആൾക്കാർ നല്ല രീതിയിലുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ കൈ ചേർക്കാൻ വേണ്ടീട്ട് ചെയ്യും പിന്നെ ഇവർക്കെന്തെങ്കിലൊക്കൊരു പ്രോ പ്രോഗ്രാം പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക ആണെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വളർന്നു വരുന്ന ഒരു തലമുറയായിട്ട് മാറും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക ആണെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും